ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ഇന്ത്യയുടെ സാമ്പത്യ വ്യവസ്ഥ എന്താ പറയാ തകർന്നുകൊണ്ടിരിക്കുകയാണ് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ നോട്ട് കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു ഒരവസ്ഥയാണ് വേറെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് നിരോധിച്ചായിരുന്നു ഇപ്പം ദാ രണ്ടായിരത്തിൻ്റെ നോട്ടും നിരോധിച്ചു അപ്പോൾ കൂടുതൽ ആളുടെ കയ്യിലും അഞ്ഞൂറിൻ്റെ നോട്ട് മാത്രമാണ് ഉള്ളത് ചിലരടുത്ത് അഞ്ഞൂറ് പോലും എടുക്കാത്ത ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ അവരടുത്ത് ചിലപ്പം എന്താ പറയാ ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് മാത്രമാണെങ്കിൽ നമുക്കത് എടുക്കാനോ അതിനൊന്നും സാധിക്കാത്ത അവസ്ഥയാണ് ബാങ്കിൽ പോലും ഇപ്പോൾ എടുക്കുന്നില്ല അപ്പം കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ പ്രശ്നം വന്നു പിന്നെ കൂടുതലായിട്ടും ഇപ്പോൾ ഡിജിറ്റൽ മാർഗ്ഗമായിട്ടാണ് എല്ലാവരും പൈസ അയക്കുന്നതും പൈസ വാങ്ങുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ആയിട്ടാണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ ഡിജിറ്റൽ മണിന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി മാറി ഇൻ്റെർനെറ്റ് വന്നതോടുകൂടി ഫുള്ള് ഇൻ്റെർനെറ്റിൻ്റെ വഴിയാണ് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്താ പറയാ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോയി പെട്ടുപോയിക്കഴിഞ്ഞാൽ അതായത് എന്തേലും പൈസ ഇല്ലാണ്ട് പെട്ടുപോയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആരെടുത്തെങ്കിലും കടം ചോദിച്ചുകഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഗൂഗിൾ പേ വഴി പൈസ ഇട്ടുതന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഗൂഗിൾ പേ വന്ന് ഈ മൊബൈൽ ഇൻ്റെർനെറ്റ് ഒക്കെ എന്താ പറയാ പേയ്മെൻ്റ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് വളരെ അധികം ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്